അതേല്ലോ ആ പറഞ്ഞോ ആ ഏത് പ്രോഡക്റ്റാ ബേഗെന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകാനുള്ള ബേഗ് ആണോ ആ ആ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ ആ കമ്പിനിയോ നാലില് ഓക്കെ ഓക്കെ വേറെ കമ്പനീസ് ആണോ അറിയേണ്ടത് സ്കൂബീ ഡെ ഉണ്ട് ഡീസലുണ്ട് കൂടുതലായിട്ടും നമുക്ക് സ്കൂബി ഡെയുടെ ബേഗ് ആണ് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതാകുമ്പം അവർ ഇച്ചിരി റഫ് യൂസ് ചെയ്താലും ഒന്നും കുഴപ്പം ഇല്ല ആ പച്ച കളറ് ഉണ്ട് പച്ച കളറില് ഏതെങ്കിലും ഡിസൈൻ ഉള്ളതൊക്കെ വേണോ അതോ പ്ലെയിൻ മതിയോ ഡിസൈൻ ഉള്ളതാണെങ്കിൽ വിലയിൽ വലിയ വ്യത്യാസം ഒന്നും വരത്തില്ല ഒരു നൂറ് ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം ഒക്കെയേ വരുന്നുള്ളൂ പൂമ്പാറ്റയുടെ പടം ഉള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ

പച്ച കളറ് പൂമ്പാറ്റ ഉള്ളത് വേണം അല്ലേ ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാമേ എ അല്ല ഞാൻ ഇപ്പോൾ തന്നെ പറയാം ഞാൻ എൻ്റെ ഇവിടുത്തെ സെയിൽസ് ഗേൾസിനോട് ചോദിച്ചിട്ട് പറയാവെ ആ ഓ ശരി പൂമ്പാറ്റ എത്രയാ അഞ്ഞൂറ് രൂപയ്ക്ക് പച്ചകളറിലെ പൂമ്പാറ്റ വേണം അല്ലേ ആ ഞാനൊന്ന് നോക്കട്ടെ പൂമ്പാറ്റ പച്ചയും മഞ്ഞയും മിക്സ് ആണെങ്കിൽ കുഴപ്പം ഉണ്ടോ പച്ചയും നീലയും ഇച്ചിരി പാടാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഒരാഴ്ച സമയം ഉണ്ടെങ്കിൽ ഞാൻ വരുത്തി തരാം അല്ലാതെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല സ്കൂള് തുറന്നല്ലോ അല്ലേ ആ പച്ചയും മഞ്ഞയും ഉള്ളൂ സർ ഇപ്പോൾ ഇവിടെ അത് വേണമെങ്കിൽ തരാം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് കൊണ്ടുപോയിട്ട് പിന്നെ പച്ചയും നീലയും വരുമ്പോൾ ഞാൻ തന്നാൽ മതിയോ ഹ് ആ പക്ഷേ ഒരു പ്രശ്നം ഉണ്ട് സാറെ അഞ്ഞൂറ് രൂപയെ അല്ല നമുക്കൊരു അറന്നൂറ്റി അമ്പത് രൂപ വരെ ആവുവെ പക്ഷേ നമ്മൾ ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്കൂബീ ഡെ ബാഗ്സിന് എല്ലാം മിനിമം വരുന്നത് അറുനൂറാ ഈ പൂമ്പാറ്റയുടെ കാര്യം പറഞ്ഞിട്ട് അമ്പത് രൂപ എക്സ്ട്രാ വരുന്നയാണെ പൂമ്പാറ്റയുടെ ഡിസൈൻ ഉള്ളത് പുറത്ത് നമക്കൊരു പ്ലാസ്റ്റിക്ക് കോട്ടിങ് കൂടെ വരുന്നുണ്ട് മഴ നനഞ്ഞാൽ ഒന്നും പറ്റാതിരിക്കാനേ അപ്പോൾ അതിനൊരു അമ്പത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ബാഗ് മഴ നനയാതിരിക്കാൻ പൂമ്പാറ്റയുടെ മേളിൽ ഒരു പ്ലാസ്റ്റിക്ക് ആ ആ ആ ആ ഓക്കെ എടുത്തുവെച്ചേക്കാം ആർക്കും കൊടുക്കാതെ മാറ്റിവെക്കാം ശരി